ഹലോ ഹലോ

ആ നമുക്കൊരൂ ആ ഓക്കേ നമുക്കൊരു മിക്സി വേണമായിരുന്നേ

ആ അതേ അതെ മിക്സി ആ മിക്സി മതി മിക്സി മതി മിക്സി മതി മിക്സി ആ അത് ആ അതെ അതെ അതെ ആ നിലവില് ഏതാണ് ഏറ്റവും നല്ല മാർക്കറ്റില് അവൈലബിളായിട്ടുള്ള ഏറ്റവും നല്ലൊരു

ആഹാ അ ഇല്ലാ നമുക്കധികമങ്ങനെ ഉപയോഗം വരുന്നതല്ല എന്നാലും നിങ്ങള് ഒരു ചെറിയ ഒരാവറേജ് ഒരൂ മൂന്നു പേര് നാലു പേരുള്ള ഒരു ഫാമിലിയിലേക്കുവേണ്ടി

ആ ഹാ ഓക്കെ ആ ഓക്കേ

ആ ആ ആ ഓക്കേ

ആ ഓക്കെ ഓക്കെ ആ ഹാ ഹ സുജാത നമ്മുടെ ഇന്ത്യൻ കമ്പനിയാണോ ആണല്ലേ ആ ഓക്കെ ഓക്കെ പിന്നെ ലെവിടെയായിട്ടാണ് നമ്മുടെ ഷോപ്പെവിടായിട്ടാണ് ആ ഓക്കെ ഓക്കെ ഇപ്പോള് ആ ഓക്കെ ഓക്കെ ഓക്കെ അതായത് നമുക്കിപ്പോള് നിലവില് എന്തെങ്കിലും അവൈലബിളായിട്ട് എന്തെങ്കിലും ഓഫറുകളോ അങ്ങനെ സംഭവങ്ങള് വല്ലതുമുണ്ടോ ആ ഓക്കേ ആ നമുക്ക് ഈ ഇ എം ഐ ഫെസിലിറ്റി അവിടെ അവൈലബിളാണോ ആ ഓക്ക്യോക്കെ ആ ബജാജിൻ്റൊക്കെ ചെയ്യുമ്പോള് അതിൻ്റെ സിബിൽ സ്കോര് നമുക്ക് പ്രോബ്ലം വരുമോ

ആ ഓക്ക്യോക്കെ ഒരൂ ആവറേജൊരു മിക്സിക്ക് എത്ര രൂപ വച്ചേ എത്ര വരേ ആവും

ഓക്കെ ആ അത് ഇ എം ഐ ഇടുമ്പോള് ഇ എം ഐ ഇടുമ്പോള് എത്ര രൂപ റെയ്ഞ്ചാവും

ആ സീറോ പേർസെൻ്റേജാണോ ഓക്കെ ഓക്കെ ഓക്കെ അ ആ ബജാജിൻ്റെ അല്ലാതെ ബജാജിൻ്റെ അല്ലാതെ വേറെ ഏതെങ്കിലുമുണ്ടോ കമ്പനിയുണ്ടോ ആ ബജാജിൻ്റെ മാത്രമേ ഉള്ളൂ അല്ലേ നമുക്ക് ഓക്കെ ഓക്കെ ആ അത് ആ അതെന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് കൊണ്ടുവരേണ്ടത് അവിടേ അത്ര മതി നമ്മുടെ ഷോപ്പ് എല്ലാ ദിവസവും വർക്കിംഗാണല്ലോ അല്ലേ

ഓക്കെ ഓക്കെ ഓക്കെ നാളെ ഞാനെത്തിക്കോളാം ഓക്കേ ശരി ശരി ഓക്കെ